ഞാൻ ആ പള്ളിയോടത്തിൽ കയറുന്നൊരു വ്യക്തിയാണ് ചെറുപ്പകാലം മുതൽ എന്നാ വച്ചാൽ ഉത്രട്ടാതി ജലമേളയില്ലേ ആറന്മുളയിൽ ഉത്രട്ടാതി ജലമേളയിൽ അമ്പത്തിരണ്ട് കരയിൽ ഒരുകര മേലുകര പള്ളിയോടത്തിലാണ് ഞാൻ തുഴയുന്നത് ചെറുപ്പകാലത്ത് ഒരു നാല് അഞ്ച് വയസ്സുവരെ റ്റി വി അകത്ത് കണ്ടിട്ടുണ്ട് അഞ്ച് ആറു വയസ്സ് മുതൽ ഞാൻ ഈ വള്ളത്തിൽക്കയറി വള്ള സദ്യക്കിൽ വള്ള സദ്യയിൽ തുഴഞ്ഞ് വള്ളസദ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഉത്രട്ടാതി ജലമേള ജലമേളയിൽ അതിനകത്ത് കയറി തുഴയാൻ പറ്റിയിട്ടുണ്ട് സെമിഫൈനൽ ഹീറ്റ്സ് കളിച്ചിട്ടുണ്ട് ജലവർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹീറ്റ്സ് കളിച്ചിട്ടുണ്ട് സെമിഫൈനല് കളിച്ചിട്ടൊണ്ട് ഫൈനല് കളിച്ചിട്ടുണ്ട് മന്നം ട്രോഫി ആറന്മുള തിരുവള്ളപ്പൻ്റെ പാർത്ഥസാരഥിയുടെ മന്നം ട്രോഫി വരെ കൈകൊണ്ട് ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ജനിച്ചകാലം മുതൽ തന്നെ ജനിക്കും ജനിച്ചതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ചൻ്റെ തലമുറക്കാർ തലമുറ അച്ഛൻ അപ്പൂപ്പന്മാർ വരെ ഈ വള്ളത്തിൽ കയറിയിട്ടുള്ള കഥകൾ കേട്ട് കേട്ട് ആണ് ഇന്ന് കുഞ്ഞിലേ മുതൽ ഞങ്ങൾ ഈ വള്ളത്തിനെക്കുറിച്ചുള്ള ഇഷ്ടം തോന്നി പിന്നെ വള്ളത്തിൽ കയറാൻ തുടങ്ങി കാരണം വച്ചാൽ പങ്കെടുത്തു അങ്ങനെ വച്ചാൽ ഈ സെമിയിൽ നമ്മുടെ തിരുവള്ളപ്പൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ഈ ഉത്രട്ടാതി ജലമേള നടക്കുന്നത് അന്ന് തന്നെ നമ്മൾ ജലവർഷത്തിൽ പങ്കെടുത്ത് തുഴഞ്ഞാണ് പങ്കെടുക്കുന്നത് പങ്കെടുത്തു ഈറ്റ്സ് കളിച്ചുകൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് തുഴയാൻ വേണ്ടി വലിയ പ്രത്യേകമൊരു ഭാഗ്യം ജനിച്ചതെന്നറിഞ്ഞാൽ മന്നം ട്രോഫി ഞങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് ജീവിതത്തിലാദ്യമായിട്ട് മന്നം ട്രോഫി എനിക്ക് ഞാൻ വള്ളത്തിൽക്കയറി മന്നം ട്രോഫി നേടിയിട്ടുള്ളത് ആ വർഷം മാത്രമേ ഉള്ളുവായിരുന്നു പിന്നെ സെക്കൻ്റും തേഡുമൊക്കെ നമുക്കല്ലാതെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ മന്നം ട്രോഫി നമുക്ക് നേടാൻ പറ്റി എനിക്ക് തുഴഞ്ഞ് തുഴഞ്ഞ് നേടാൻ പറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ സെക്കൻ്റ് നേടാൻ നേരത്ത് ഞങ്ങൾക്ക് എനിക്ക് തുഴയാൻ പറ്റി അത് ഞാൻ ഞാൻ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വള്ളത്തിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻപ്പറ്റി അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്